ഹലോ ആക്സിസ് ബാങ്കിലേക്ക് സ്വാഗതം മുന്നേ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നോ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നോ ഇടപാട് നടത്തുന്നയാളോ ആദ്യായിട്ടാണല്ലേ അത് നിങ്ങൾ ബാങ്കില് പ്രൂഫ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതു പറഞ്ഞ് തന്നിരുന്നോ ഓക്കേ നിങ്ങളുടെ ഫോട്ടോ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ ആധാർ വേണം ഐഡി ഐഡി കാർഡ് ഇല്ലേ നിങ്ങൾക്ക് വോട്ടർ ഐഡി യെസ് ഓക്കേ എസ്എസ്എൽസി ബുക്ക് ഇത്രയും രേഖകളാണ് വേണ്ടത് കെട്ടോ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിങ്ങൾ സീറോ ബാലൻസാണോ ചെയ്യുന്നത് ഏത് അക്കൗണ്ട് ആണ് എടുക്കുന്നത് ബാലൻസ് ഓക്കേ അപ്പോൾ മൂവായിരം രൂപയാണ് സ്റ്റാർട്ടിങ് അക്കൗണ്ട് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾ ചെയ്യേണ്ടത് അത് പിൻവലിക്കാൻ പറ്റില്ല അത് അതിൽ തന്നെ വെക്കേണ്ട എമൌണ്ട് ആണ് കെട്ടോ ബാങ്കിൽ തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട എമൌണ്ട് ആണ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് വൺ വീക്ക് കൊണ്ടായിരിക്കും സെറ്റ് ആവുക നാളെ വന്ന് എടുത്ത് കഴിഞ്ഞാ അക്കൗണ്ട് ഒരു വൺ വീക്ക് ആകുമ്പോൾ ആണ് പിന്നെ ചെക്ക് ബുക്കും എടിഎം കാർഡും ഒക്കെ പോസ്റ്റ് ഓഫീസ് വഴി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇത് സ്ഥാപനം എവിടെ ആണെന്നൊക്കെ അറിയാലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വിളിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക യെസ് കാര്യങ്ങൾ അന്വേഷിക്കുക എന്തെങ്കിലും പറഞ്ഞതിൽ മാഡത്തിന് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കണം ഓക്കേ താങ്ക്യൂ